ഞാൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും മത്സരത്തിലോ കാര്യങ്ങളിലോ പ്രദർശനത്തിലോ അതായത് കല സൃഷ്ടിയൊക്കെ നൽകിയിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മത്സരങ്ങളിലൊക്കെ ഞാന് അതായത് ചിത്രം വരയ്ക്കും കാര്യങ്ങൾക്കായിട്ട് ഞാൻ ഒരുപാട് മത്സരങ്ങളിലും കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ചിത്രം വര ആ കാര്യങ്ങളൊക്കെ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ പറഞ്ഞ് ജസ്റ്റ് നീയെന്തായാലും വീട്ടിൽ നിന്ന് വരയ്ക്കുന്നതല്ലേ അപ്പോൾ വെറുതെ ഒരു രസത്തിനൊക്കെ കൂടി നോക്കെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഒരു മത്സരത്തിന് കൂടിയത് ഞാൻ എൻ്റെ ഏഴാം ക്ലാസ്സിൽ നിന്നാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് കൂടിയതാണ് പക്ഷെ നോക്കുമ്പോൾ അതിലൊരു പത്ത് നാല്പത് കുട്ടികളുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു അപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റായി അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലോണം വരയ്ക്കാനൊക്കെ അറിയുമായിരിക്കും പറഞ്ഞിട്ട് ഞാൻ പിന്നെ എട്ടാം ക്ലാസ്സിൽ നിന്നും ഒമ്പതാം ക്ലാസ്സിൽ നിന്നൊക്കെ ഞാൻ കൂടുതലായിട്ടും ഞാൻ ചിത്രം വര മത്സരത്തിനും കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാനും തുടങ്ങി എനിക്ക് അത്യാവശ്യം നല്ല പിന്നെ ഇതുമുണ്ടായി എന്ത് പിന്നെ താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായി എനിക്ക് ചിത്രം വരയ്ക്കാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിത്രം വരയ്ക്കാൻ അതുകൊണ്ടുതന്നെ എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചിത്രത്തിൻ്റെ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ നല്ലൊരു ചിത്രം വരച്ച് എനിക്ക് ജയിക്കാൻ പറ്റിയാൽ